ഞാൻ ജീവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലാണ് അതായത് കേരളത്തിന് പതിനാല് ജില്ലയുണ്ട് അതില് പതിനാലാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ലയെന്ന് പറയണത് ഏറ്റവും അവസാനമായി കേരളത്തില് വന്നൊരു ജില്ലയാണ് കാസർഗോഡ് അതുകൊണ്ടുതന്നെ അതിൻ്റെ പരിമിതികളും അതിൻ്റെതായ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പിന്നോക്കം ജില്ലയായ കാസർഗോഡാണ് അതിൽ ഞങ്ങൾക്ക് അടുത്ത് ഉള്ള എന്ന് പറയുന്നത് സംസ്ഥാനം എന്ന് പറയുന്നത് കർണ്ണാടകയാണ് അതായത് അവിടെ മംഗലാപുരം എന്നൊര് സ്ഥലമുണ്ട് അതായത് മംഗ്ളൂര് എന്നാണ് അറിയപ്പെടുന്നത് ആ സ്ഥലമാണ് ഞങ്ങൾക്ക് അടുത്തുള്ളൊരു പട്ടണമായിട്ടുള്ളത് കാസർഗോഡെന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല വന്നത് അന്ന് മുതൽ ഇന്ന് വരെ കാസർഗോഡ് ജില്ല സംസ്ഥാന സർക്കാരിൽ നിന്നാകട്ടെ പൊതുവെ എല്ലാ മേഖലയിലും നമ്മള് ഒരു ഒരു സുരക്ഷിതമില്ലാതെ അല്ലെങ്കില് ചുറ്റുമനെ മൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങള് ഒരുപാട് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് എന്തിനേറെ പറയണം നമുക്ക് നല്ലൊരു റോഡുകളോ അതേപോലെ തന്നെ റോഡുണ്ടായാൽ തന്നെ ആ സ്ഥലങ്ങളില് ആവശ്യമായ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സ് സൗകര്യങ്ങളില്ലാതെ അവസ്ഥ അത് എന്നെ വളരെ അനുഭവ പ്രശ്നങ്ങള് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിക്കാൻ പോയത് ഇരുപത്തെട്ട് കിലോമീറ്റർ അകലുള്ള മഞ്ചേശ്വരത്തേക്കാണ് അപ്പോൾ റോഡ് നല്ല റോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂൾ പത്ത് മണിക്ക് കോളേജിലേക്ക് എത്തണം വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് പത്ത് മണിയാകുമ്പോൾ കോളേജിലേക്ക് എത്താൻ പറ്റു കാരണം പലപ്പോഴും റോഡുകള് നല്ല റോഡില്ലാത്തത് പൊട്ടിപ്പൊളിഞ്ഞ റോഡായതുകൊണ്ട് നമ്മൾ അതേപോലെ ജെർക്ക് റോഡായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് റിക്ഷ സൗകര്യങ്ങള് ഉണ്ടാവില്ല അതേപോലെ ബസ്സ് നേരെ ഓടുകയും ചെയ്യില്ല അപ്പോൾ പലപ്പോഴും കിലോമീറ്ററുകളൊക്കെ നടന്നിട്ടായിരിക്കും നമ്മൾക്ക് പോവണ്ടത് അപ്പോൾ നമ്മൾ ചെറിയ പട്ടണങ്ങളിൽ എത്തി കഴിഞ്ഞാല് അവിടെ നിന്ന് ബസ്സ് കിട്ടും ആ ബസ്സില് കയറി വേണം നമ്മൾക്ക് പോകേണ്ടത് ബസ്സില് കയറിപ്പോയി അപ്പോൾ ഒരുപാട് കുട്ടികള് അവിടെ വെയ്റ്റ് ചെയ്യുന്നു അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ബസ്സ് പോയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് കിട്ടൂ കാരണം ഒരുപാട് പേർ ആൾക്കാര് ബസ്സിന് വെയ്റ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ അത്ര ദൂരത്ത് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് കുന്നിൻ്റെ മുകളിലാണ് നമ്മളെ കോളേജ് ഉള്ളത് നടക്കണം അവിടേയും ബസ്സില്ല അപ്പോൾ ഒരുപാട് ഏകദേശം രണ്ട് കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നത് അതു മാത്രമല്ല കോളേജിലാകെ നാല് കോഴ്സുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളു കൂടുതലൊന്നുമില്ല പലപ്പോഴും പണം ഉള്ള കുട്ടികളൊക്കെ അന്യ സംസ്ഥാനത്ത് അതായത് കർണ്ണാടക മംഗലാപുരത്തൊക്കെ പോയിട്ടാണ് പഠിക്കുന്നത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതേപോലെതന്നെ എനിക്കറിയാം എൻ്റെ അടുത്ത കുടുംബക്കാരൊക്കെ അസുഖമായാല് കാസർഗോഡ് അതിണുള്ള സൗകര്യമൊന്നുമില്ല ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളില് അവിടെ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ എമർജൻസി ആക്സിഡന്റായാൽ പോലും അവര് എല്ലാവരും പറയുന്ന ഹോസ്പിറ്റലില് മംഗലാപുരം കൊണ്ടുപോണതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ ഇവിടെ നിന്ന് മംഗലാപുരം എത്തുമ്പോഴേക്കും മിക്ക ആൾക്കാറും എമർജൻസി ആയ ആൾക്കാറും മരണപ്പെട്ട് പോകുന്ന ഒര് ആ സിറ്റുവേഷനാണ് നമ്മള് കണ്ടിട്ടുള്ളത് എന്തും ഇല്ലെങ്കില് കാണാം എമർജൻസി പെട്ടന്ന് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും പക്ഷേ അവിടെ എത്തുമ്പോൾ തന്നെയെന്ത് അവര് അത് മരണപ്പെടുന്ന അവസ്ഥ പിന്നെ അവിടെ ഭീമമായ ചാർജ്ജും കാരണം പലപ്പോഴും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇങ്ങനെ നമ്മളക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ടായിട്ടാണ് എനിക്കന്ന് തന്നെ വളരെ പ്രശ്നങ്ങള് വന്നിരുന്നു എന്തുകൊണ്ടെന്നു വച്ചാല് കാസർഗോഡ് അതിനുള്ള സൗകര്യമില്ല എനിക്ക് പഠിക്കാനുദ്ദേശിച്ചത് ഈ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ ഉള്ള എന്താണോ കോഴ്സ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇത് എൻ്റെ മാത്രം അനുഭവങ്ങളല്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ വസിക്കുന്ന പല ആൾക്കാറും അനുഭവിച്ചൊരു പ്രശ്നമാണ് ഈ യാത്രാ സൗകര്യങ്ങള് അതേപോലെ തന്നെ ഉന്നത പഠനത്തിനുള്ള സൗകര്യമില്ലാത്തൊരു നല്ല പഠനം പഠിക്കാനുള്ള കോളേജുകൾ ഇവിടെ കുറവാണ് യൂണിവേഴ്സിറ്റിക്ക് ചേരുന്ന കോളേജ് വളരെ ചുരുക്കമാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് വെറും അഞ്ച് കോളേജാണ് ഗവണ്മെന്റിന്റെ കീഴിലുണ്ടായത് അത് പിന്ന വേറെ പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് വളരെ അധികം ബുട്ടിമുട്ടിയിരുന്നു പക്ഷേ പണക്കാര് പണമുള്ള ആൾക്കാരൊക്കെ അവര് കർണ്ണാടകയില് പോയി മംഗലാപുരം പോയി തമിഴ് നാടൊക്കെ പോയി പഠിച്ചിരുന്നു അല്ലങ്കിൽ അന്യ ജില്ലയിലേക്ക് അതായത് കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിനെ പോലുള്ള എൻ എ എം കല്ലിക്കണ്ടി പോലുള്ള നല്ല കോളേജിലേക്ക് പോയിരുന്നു പക്ഷേ പാവപ്പെട്ടവരായ നമ്മളെ പോലത്തെ ആൾക്കാറ് ഗവണ്മെന്റിന്റെ ആശ്രയിക്കേണ്ട അവസ്ഥ അപ്പോൾ ഗവണ്മെന്റില് കാസർഗോഡ് കോളേജിനാണെങ്കില് ബികോമിന് സൗകര്യമില്ല അവിടെ അന്ന് ഇന്നുണ്ട് ആ സമയത്ത് ഞാൻ പറയുന്ന രണ്ടായിരത്തി ഒന്നിൻ്റെ സംഭവമാണ് ആ സമയത്ത് ബി കോം എന്ന കോഴ്സിലവിടെ സയൻസുമായി ബന്ധപ്പെട്ട പല കോഴ്സുകളും ഹ്യൂമൻ ബി എ ആയി ബന്ധപ്പെട്ട കോഴ്സുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതുപോലെ തന്നെ ബി കോമ് ഉള്ളത് ഒന്ന് മഞ്ചേശ്വരം ഗോവിന്ദ് പൈ കോളേജിലും അതേപോലെ നെഹ്റു കോളേജിലും ആണ് ഉണ്ടായിരുന്ന് നെഹ്റു കോളേജ് എന്ന് പറയുമ്പോൾ അത് അമ്പത് കിലോമീറ്റർ ദൂരെയാണ് അന്ന് കുറച്ച് അടുത്തുണ്ടായത് ഗൗതമി കോളേജാണ് അപ്പോൾ അവിടെ പോയാണ് പഠിച്ചത് അവിടെയാണെങ്കിലോ തീരെ സൗകര്യമില്ല കാരണം കേരളത്തിന്റെ അങ്ങേ അറ്റമായതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ വരെ അപര്യാപ്തമാണ് അവിടെ ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റും ഉണ്ടാകില്ല കൂടുതലും ഗസ്റ്റ് ലക്ച്ചേഴ്സായിരുന്നു ഗസ്റ്റ് ലക്ച്ചേഴ്സാണങ്കിൽ എല്ലാ ദിവസം വരുന്നും ഇല്ല അപ്പോൾ നമ്മൾ എന്തെക്കെയായി ഇന്ന് നമ്മുടെ കഠിനാദ്ധ്വാനം കൊണ്ട് പഠിച്ച് നിലയിലേക്കെത്തി പക്ഷേ ഇപ്പോഴും നമ്മളിവിടെ കാണുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് കാരണം നല്ലൊരു റോഡുകളില്ല നല്ല ബസ്സ് സൗകര്യമില്ല എന്നാൽ ട്രെയിനാണെങ്കില് ഒരു നല്ല ട്രെയിനുകളൊട്ട് ഒന്ന് കാസർഗോഡ് നിർത്തുന്നില്ലാന്നുള്ള ഒരുപാട് പ്രശനങ്ങളുണ്ട് അതേപോലെ ആരോഗ്യമേഖലയാണ് ഏറ്റവും പരിതാപ സ്ഥിതിയു ള്ളത് ആരെങ്കിലും പെട്ടന്ന് ഒര് ആക്സിഡന്റായാല് എമർജൻസി വന്നാലോ ഇവിടെ കാസർഗോഡ് കൊണ്ടുപോയാലവിടെ അതിനുള്ള സ്പെഷ്യാലിറ്റി സൗകര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ടുതന്നെ അവരെ മംഗലാപുരത്തേക്ക് റഫറ് ചെയ്യുന്നു മംഗലാപുരത്ത് എത്തുമ്പോൾ തന്നെ പല രോഗികൾ അന്നേരം മരണപ്പെടുന്നൊരു ദുഖഃമായ അവസ്ഥയാണ് നമ്മൾ കണ്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊൾ ഇതിനക്കെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗതാഗത സൗകര്യക്കുറവും എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടുന്നത് അടുത്തുള്ള പട്ടണത്തിൽ പോകാനും തടസ്സമായിട്ടുള്ളതെന്ന് ചോദിച്ചാല് ഇതിൽ തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് ഇൻറ്റർവ്യൂ ഒക്കെ ബംഗ്ളൂരോ അല്ലെങ്കില് എറണാകുളത്തോ നല്ല ബഹുരാഷ്ട്ര കമ്പനികൾ ഒരുപാട് ജോലി സാദ്ധ്യതകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അവിടേയ്ക്ക് പോകണമെങ്കില് നമ്മൾക്ക് സമയം വേണം ഇന്ന് വിളിച്ച് നാളെ വരണമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനുള്ള സൗകര്യക്കൊറവ് വളരെ അനുഭവിക്കുന്നുണ്ട് കാരണം സൗകര്യമില്ല ഇവിടെ നിന്ന് പെട്ടന്ന് വിളിക്കുമ്പോൾ അവിടെ പോകണമെങ്കില് ട്രെയിൻ സൗകര്യം വളരെക്കുറവാണ് രണ്ടോ മൂന്നോ ട്രെയിനുകളോ അങ്ങോട്ട് ദൂരത്തേയ്ക്ക് പോകുന്ന ഉണ്ടാകും ആ ട്രയിനുകളാണെങ്കില് ബൂക്ക്ഡ് ആയിരിക്കും അപ്പം നമ്മള് പലപ്പോഴും ഈ ഫുട് പാത്തിലൊക്കെ ഇരുന്നിട്ടായിരിക്കും പോകേണ്ടി വരുന്നത് അല്ലെങ്കില് ഭീമമായ പൈസ കൊടുത്തിട്ട് കാറിലെല്ലാം പോകേണ്ടി വരും അത് അവിടെ പോയി ചിലപ്പോൾ ജോലി കിട്ടിയിട്ടില്ല എന്ന് വരും പിന്നേയും ചിലവാണ് അങ്ങയുള്ള പലപല പ്രശ്നങ്ങള് അഭിമുഖീകരിച്ച് ഒരു ജില്ലയില് അധിവസിച്ച വ്യക്തിയെന്ന നിലയില് ഇങ്ങനെയുള്ള ഇതെക്കെ ഗതാഗത സൗകര്യവും ഉപരി പഠനത്തിനുള്ള എല്ലാ ഇതും ഗവണ്മെമെന്റ് സർക്കാർ തലത്തിൽ നിന്ന് ചെയ്ത് കൊടുത്ത് ഈ കാസർഗോഡ് ജനതയെ രക്ഷിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു